അല്ല ചേച്ചി എത്ര കാലമായി നിങ്ങളോട് പറയുന്നു ഈ മസാല ബോണ്ടെനെ കുറിച്ചുള്ള പരാതി എത്ര കുട്ടികളാണ് വന്നിട്ട് പറയുന്നത് എന്താ പ്രശ്നമെന്ന് നിങ്ങൾക്കിനി തിരിഞ്ഞിട്ടില്ല ഇത് നോക്കിയാട്ടെ ഇതിനകത്തെന്നാ നൂൽ വലിയുന്ന പോലെ വലിയുന്നു ഏത് ദിവസത്തെ മസാല കൊണ്ട് തരുന്നതാണ് രാവിലെ രാവിലെ ആക്കുന്ന സാധനത്തിൽ ഇങ്ങനെ നൂൽ വെടക്കായിട്ട് വലിയുന്നത് നൂൽ വരികയാണ് നിങ്ങൾ ആക്കുന്ന സാധനം ഉള്ളോണ്ടല്ലേ ആക്കുന്ന സാധനം മര്യാദയ്ക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ നൂൽ വരുമോ ഇന്നലത്തെ സാധനമായിട്ടാണ് എന്ത് കൃത്യമായിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ മക്കളെ പോലെ തന്നെയല്ലേ നമ്മളെല്ലാവരും നിങ്ങളുടെ മക്കൾക്കെങ്കിൽ നിങ്ങളിങ്ങനെ ഉ പഴയതെല്ലാം എടുത്ത് കൊടുക്കുമോ ഒരു സാധനം ബെടുക്കാൻ വേണ്ടീക്കിൽ അതിനുണ്ടാക്കിയ സമയവും കൂടി കഴ് കഴിയണം ആ തലേന്ന് നിങ്ങളുണ്ടാക്കി വെച്ച സാധനമാണ് പിറ്റേന്ന് രാവിലെ എടുത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ നൂൽ വലിയുന്നത് പോലെ ആകുന്നത് ഇന്നലെ മറ്റേ ആ ക്ളാസിൽ ചെക്കൻ ഛർദ്ദിച്ചിട്ട് കൊണ്ടുപോയത് നിങ്ങൾ കണ്ടിട്ടില്ല ഇവിടത്തെ ബോണ്ട തിന്നിട്ടാണ് ഇന്ന് ദാ എനിക്ക് രാവിലെ കിട്ടി എൻ എന്ത് വേറെ പ്രശ്നവും ഇന്ന് രാവിലെ ഞാനിവിടെ വന്നിട്ട് വേറെയും പറഞ്ഞില്ലേ ഇന്ന് ഉച്ചക്കും ഇതാ ഒരു കുട്ടീനെയാണ് ഛർദ്ദിച്ചിട്ട് കൊണ്ട് പോകുന്നു ഇത് നിങ്ങളെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിയാകുമോ അതുമല്ല എത്ര പിന്നെ നിങ്ങടെ മോൻ്റെ തോന്നുന്ന പാടല്ലേ ഛർദ്ദിക്കുന്നു അതിന് മുന്നേ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുള്ള എല്ലാ ദിവസങ്ങളും ഛർദ്ദിക്കുന്നുണ്ട് ഇവിടെന്ന് ബോണ്ട കഴിച്ചു അന്ന് ഛർദ്ദിയാണ് അപ്പോൾ ഇതാവല് ആ ഛർദ്ദിക്കുന്നുണ്ട് കഴിച്ച കൂട്ടരെല്ലാം ഛർദ്ദിക്കുന്നു വെളിയിൽന്നാണോ കൊറിയോക്ക് നിങ്ങൾക്ക് നിങ്ങളങ്ങനെ സത്യം പറയുന്നുണ്ടാവൂലാ ഛർദ്ദിക്കുന്നുണ്ടാവും പറയുന്നുണ്ടാകാം നിങ്ങൾ മുമ്പന്നല്ലേ ആശുപത്രീലേക്കെല്ലാം കൊണ്ട് വന്ന് കാണില്ലേ ബോണ്ടേനകത്തപ്പം വലി എന്നതാണ് നൂൽ വലിയുന്നത് പോലെ വലിയുവോ ഒരു ബെടക്കാവാത്ത സാധനത്തിൽ നല്ല സാധനമെങ്കിൽ നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല പിന്നെനിങ്ങൾ പറയാമെന്നല്ലാണ്ട് നമ്മളിപ്പം എന്താ ചെയ്യേണ്ടേ ഇപ്പം പ്രിൻസിപ്പാളിന് അല്ലെ ഇന്ന് കംപ്ളേയിന്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ നിങ്ങൾടടുത്തും വന്ന് പറയണ്ടേ ഇനി പ്രിൻസിപ്പാൽ തീരുമാനിക്കട്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയെന്നാൽ പ്രിൻസിപ്പാളോട് ആ ആ ആ അതെ അതെ എന്ന പ്രിൻസിപ്പാളെയും കൂട്ടിയിട്ട് വരാം എന്നിട്ട്നിങ്ങൾ തീരുമാനിക്ക് പോയിട്ട് വരാം ആ ആ കൂട്ടിയിട്ട് വരാം